ഹലോ ഇത് ലോൺ ഡിപ്പാർട്ട്മെൻറ്റ്

ആ ഇത് ലോൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാഡം അല്ലേ ആ എനിക്കൊരു ലോൺ അപ്ലൈ ചെയ്യാനായിരുന്നു അപ്പോൾ എന്താ അതിന് ചെയ്യേണ്ടതൂന്നൊക്കെ അറിയാൻ ആ എനിക്കൊരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു അപ്പോൾ ഒരു അഞ്ച് ലക്ഷം എമൗണ്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഉണ്ട് അക്കൗണ്ടുണ്ടായിരുന്നു ആ ഇതൊരു നെക്സ്റ്റ് വീക്കിനുള്ളീൽ കിട്ടിയാൽ ഇത് കൊള്ളാമായിരുന്നു പക്ഷേ ഇതിൽ എലിജിബിലിറ്റിയൊക്കെ എങ്ങനെയാണ് ആ മാം ആ ആ പിന്നെ നമ്മളിത് ഓൺലൈനായിട്ടാണോ കൊടുക്കണ്ടത്

ആ ഓക്കെ മാം ആ പിന്നെ അതിൽ ലോൺ എടുക്കാണെങ്കീൽ തന്നെ നമ്മൾ തിരിച്ചടയ്ക്കുന്നതൊക്കെ ആ മാം ഓക്കെ അപ്പോൾ എന്തായാലും നാളത്തന്നെ വരാം